നിങ്ങളെ ആകർഷിക്കുന്ന മത ആകർഷിക്കുന്ന മതങ്ങൾ എന്നുവെച്ചാല് എനിക്ക് എല്ലാ മതങ്ങളേയും ഇഷ്ടമാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ടില്ല ഒരോർത്തക്കും ഓരോ രീതികളാണല്ലോ പിന്നേ ഹിന്ദൂസിൻ്റെ അത്യാവശ്യം ഐ എനക്ക് ഹിന്ദു ഹിന്ദു ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്നത് അവരുടെ എന്ത പറയുക അവർടെയൊരു പായസമില്ലെ ഒരു പ്രസാദം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ അരവണ പായസം അതൊക്കെ എനക്ക് ഭയങ്കര ഇഷ്ടമാണ് എനക്ക് എല്ലാരും ഇങ്ങനെ തരും സ്കൂളിന്നാണെങ്കിലും അടുത്തുള്ള വീട്ട്ന്നാണെങ്കിലും ഒക്കെ അത് കൊണ്ടുതരാറുണ്ട് അത്പോലെ എനക്ക് ഈ വള്ളിയ്യൂർക്കാവ് ഉത്സവമുണ്ട് ഇവിടെ നടക്കുന്ന ഒരു ഒരുത്സവാണ് അത് ഹിന്ദുക്കളെന്നല്ല എല്ലാരും എല്ലാ മതങ്ങളും അവിടെയുണ്ടാകും എല്ലാ ദിവസവും പോകുമായിരുന്നു ഒരുപാടിഷ്ടമാണ് ആ ഉത്സവമൊക്കെ അടി പൊളിയായിരിക്കും ഒരുപാട് ആനകളും അയിനെയൊക്കെ കാണാം പോല ഓണാ ഓണായിക്കോട്ടെ ഈ ആഘോഷമായ ഓണത്തിനും എനക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ഉത്സവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോകാറുണ്ട് പിന്നെ അവിടെയൊക്കെ ഓരോ പിന്നെ ചെറിയ ചെറിയ കടകളുണ്ടാകും ഓരോ വില കുറഞ്ഞ് വിൽക്കുന്ന അല്ലെങ്കിൽ വിലകൂടിയ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് പിന്നെ ഈ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അത്പോലെ വെല്യോരിക്ക്ള്ള ഫാൻസി ആണെങ്കിലും അതൊക്കെ വാങ്ങാറുണ്ട് പിന്നെ അടിപൊളി അല്ലെ കാണാന് ഭയങ്കര ഇഷ്ടമാണ് അവരെ ഉത്സവങ്ങളൊക്കെ പിന്നെ പറഞ്ഞുകേട്ടിട്ടുണ്ട് ഈ തൃശൂർ പൂരം അതൊക്കെ പറഞ്ഞുകേട്ടിട്ടുണ്ട് പിന്ന എല്ലരും കാണുന്നതാണല്ലോ ആവിടയൊക്കെ അടിപൊളിയാണ്